ഹലോ സാർ ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഓഫീസ് അല്ലേ സാർ ഞങ്ങൾക്ക് എനിക്ക് ഈ കന്യാകുമാരി വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സമയം ഒന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ട്രെയിനിൻ്റെ എനിക്ക് ഈ വരുന്ന

അതുകൊണ്ട് സേഫായിട്ട് പറ്റിയ ഒരു ഫസ്റ്റ് ക്ലാസ് തന്നെ വേണമെന്നാണ് അപ്പോഴേക്കും എനിക്ക് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് എനിക്ക് പത്താം തീയതി പത്താം തീയതിയോ പത്താം തീയതിക്ക് മുൻപ് ഒൻപതാം തീയതി ആണെങ്കിലും കുഴപ്പമില്ല അപ്പം ഈ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിന് ഒന്ന് ജസ്റ്റ് പറയാമോ അപ്പം സമയം കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ

അപ്പം അത്രയും സമയത്തിൻ്റെ ഇത് ഒന്ന് നോക്കണം അതുകൊണ്ടാണ് വിളിച്ചത് സാറ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരാമോ ഓക്കെ സർ താങ്ക്യൂ